ഈയൊരു ചോദ്യത്തിന് ഉത്തരം പറയുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചെടുത്തോളം എനിക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല കാരണം ഞാൻ ഒരു ചിത്രകലായെന്ന് പറയുമ്പോൾ ഞാൻ അതിലേക്ക് അത്രയും പരിശീലനം നേടിയൊരു ആളല്ല ഞാൻ ഒരു അത്ര നല്ല ചിത്രകലാകാരിയാണ് എന്നെനിക്ക് തോന്നിയിട്ടില്ല എന്നാലും അത്യാവശ്യം ഞാൻ പുറത്തേക്കൊന്നും അങ്ങനെ പടങ്ങളൊന്നും വരച്ചത് കാണുകയോ കാണിക്കുകയോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ എൻ്റെ കുട്ടികൾക്ക് അവരുടെ സ്കൂളിലല്ലാണ്ട് വേറെ പുറത്തേക്കൊന്നും പടങ്ങളൊന്നും അങ്ങനെ ഞാൻ എന്തരാണ് ഇപ്പോൾ മിക്കവരായാലും പടങ്ങളൊക്കെ വരച്ച് സോഷ്യൽ മീഡിയാലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഞാൻ അതുപോലും ചെയ്യാത്തൊരാളാണ് അപ്പം ഞാൻ ചിത്രകലയിലേക്ക് പ്രവേശിക്കുന്നവർക്ക് സാധാരണ സംഭവിക്കുന്ന വീഴ്ചകളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കല അങ്ങനെ അഭ്യസിച്ചിട്ടില്ല അത്കൊണ്ട് എനിക്ക് സംഭവിക്കുന്ന വീഴ്ചകൾ എന്ന് എനിക്ക് പ് അതിനെ കുറിച്ചൊന്നും എനിക്ക് ഒരു അറിവില്ല നല്ല രീതിയിൽ പട് ചിത്രകല അഭ്യസിക്കുവാണെങ്കിൽ നല്ല ചിത്രങ്ങൾ നല്ല ജീവനുള്ളതായ ചിത്രങ്ങൾ വരക്കുവാൻ കഴിയും എന്നൊരു ഇതുണ്ട് എനിക്ക് അറിവുണ്ട് എനിക്ക് അപ്പോൾ ചിത്രകല നല്ല രീതിയിൽ അഭ്യസിക്കുവാണ് അതിൽ പ്രവേശിക്കുന്നവർ തീർച്ചയായും ഒരു എന്താണ് പരിശീലനം നേടുക തന്നെ ചെയ്യണം അങ്ങനെ പരിശീലനം നേടി എടുക്കുമ്പോൾ നമ്മളുടെ ഇപ്പോൾ ഞാൻ വരക്കുമ്പോൾ ആയിക്കോട്ടെ എനിക്ക് അറിയാം ധാരാളം തെറ്റുകളൊക്കെ വരാറുണ്ട് പക്ഷേ ആ തെറ്റുകളൊന്നും കൂടാതെ ഒരു പൂർണ്ണ ചിത്രകാരനെന്ന നിലയിൽ ലങ്കി ചിത്രകാരിയെന്ന നിലയിൽ നമ്മൾ ഉയരണമെങ്കിൽ ആ ചിത്രകല നമ്മൾ പരിശീലിക്കുക തന്നെ വേണം അപ്പം അല്ലാതെ നമ്മൾ വരക്കുവാണെങ്കിൽ നമുക്ക് ഒത്തരി വീഴ്ച്ചകളൊക്കെ സംഭവിക്കാം അപ്പം അതൊക്കെ ഒഴുവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു നല്ല കലാകാരനാകാൻ വേണ്ടിയിട്ടാണ് നമുക്ക് പരിശീലനം വളരെ ആവശ്യമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നത് അതിനു വേണ്ടിയിട്ട് അതിനർഹരായ ആളുകളുടെ അടുത്ത് പോയി നമ്മൾ അങ്ങനെ കലാ അഭ്യസിക്കുവാണെങ്കിൽ നമ്മളുടെ ചിത്രകലയിലേക്കുള്ള ഒരു വലിയ ചുവട് വെപ്പ് തന്നെയായിരിക്കും അതെന്നാണ് എനിക്ക് ഈ പറയാനുള്ളത് തീർച്ചയായും ചിത്രകല ഒരു വലിയ എന്താണ് പരിശീലനത്തിലൂടെ തന്നെ നമുക്ക് സ്വായത്തമാക്കാൻ സംഭവിക്കുക പറ്റുന്ന കാര്യമാണ് അല്ലാതെ നമ്മൾ ഒരു പേനയും പേപ്പറൂടുത്ത് അതിൽ വരച്ച് കൂട്ടുന്ന കാര്യങ്ങൾ അല്ല എന്ന് എനിക്ക് നല്ല ഉത്തമ ബോധ്യമുണ്ട് എന്നിരുന്നാലും ഞാൻ വരക്കുന്നത് എനിക്ക് എനിക്ക് ഒരാത്മ സംതൃപ്തിക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ പക്ഷേ അത് ഒരു കലയിലേക്ക് നമ്മള് പ്രവേശിക്കുമ്പോൾ അതെന്ത് ചെയ്യണം അത് ആത്മാർത്ഥമായിട്ടാണ് ചിത്രകലയിലേക്ക് മാത്രമായിട്ട് പ്രവേശിക്കുകയാണെങ്കിൽ നമ്മൾ അതിനൊരു പരിശീലനം നേടുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഒരു പൂർണ്ണ കലാകാരനായിട്ട് മാറുകയുള്ളൂ അല്ലെങ്കിൽ ഒരു പൂർണ്ണ കലാകാരിയായിട്ട് മാറുകയുള്ളു അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പരിശീലനം നേടിയാലേ പറ്റുകയുള്ളു അല്ലാതെ സാധാരണ പോലെ നമ്മൾ വരക്കുവാണെങ്കിൽ ചിത്രങ്ങൾ നമുക്ക് വരക്കാം എന്നിരുന്നാലും ഒരു കല പൂർണ്ണമായിട്ടും ഞാൻ ഒരു ചിത്രകാരനാണ് എന്ന് പറയുമ്പോൾ അയാൾ അറിഞ്ഞിരിക്കേണ്ടതായ ഒത്തിരി കാര്യങ്ങളുണ്ട് അദ്ദേഹം മനസ്സിലാക്കേണ്ടതായ ആ ചിത്രങ്ങൾക്ക് ചിത്രങ്ങൾ എങ്ങനെ വരയ്ക്കണം എവിടെ വരയ്ക്കണം അതിൻ്റെ അളവ് കോലുകൾ ഒക്കെ അറിയണമെങ്കിൽ നമ്മൾ ചിത്രകല പരിശീലിച്ചേ പറ്റുകയുള്ളു അപ്പം അത് പരിശീലിച്ചാൽ മാത്രമേ നമുക്ക് ആ കലയിൽ ഒരു വിദ്വാനായി മാറാനായിട്ട് പറ്റുകയുള്ളു അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ പരിശീലനം എന്നുള്ളത് വളരെ അനിവാര്യമാണ് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് ചിത്രകലയിലേക്ക് പ്രവേശിക്കുന്നവർക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാതിരിക്കാനും അല്ലെങ്കിൽ ചിത്രകല വളരെ എളുപ്പത്തിൽ നിസ്സാരമായി സ്വായത്തമാക്കാൻ കഴിയണമെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയുള്ള അതിപ്പം ഏതൊരു കലയായിക്കോട്ടെ ചിത്രകല തന്നെ ആവണമെന്നില്ല ഏതൊരു കലയായാലും അതിൽ നമ്മൾക്ക് ഒരു കഴിവ് നേടണമെങ്കിൽ അല്ലെങ്കിൽ അതിലൊരു ഉയർച്ച നമുക്ക് ഉണ്ടാകണം എങ്കിൽ നമ്മൾ ആ കല അഭ്യസിച്ചേ മതിയാവുള്ളു അതിനുള്ള പരിശീലനം നേടിയേ മതിയാവുള്ളു അപ്പം തീർച്ചയായും അതിലൂടെ മാത്രമേ നമുക്ക് അവിടൊരു സ്ഥാനം ഉറപ്പിക്കാൻ പറ്റുകയുള്ളു അത്പോലെ തന്നെയാണ് ചിത്രകലയുമെന്നാണ് എനിക്ക് പറയാനുള്ളത്